നിർമാണം ഖനനം കൃഷി എന്നീ മേഖലകളില് വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു വാഹനം കാർഷിക വാഹനമാണ് എന്ത് ട്രാക്ടർ അതിന് ഉഴുവി യന്ത്രം എന്ന് നമ്മള് പറയും മറ്റു യന്ത്രമുള്ള മോട്ടോർ വാഹനങ്ങളുടെ സമാന സ്വഭാവമുള്ള ഈ വാഹനം ഇപ്പോള് നമ്മുടെ മെയിൻ റോഡല്ലാത്ത സ്ഥലങ്ങളിൽ കൂടിയും സഞ്ചരിക്കാൻ അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് കഴിയും ഇപ്പോള് ബുൾഡോസർ തുരപ്പൻ യന്ത്രങ്ങള് ഖനന യന്ത്രങ്ങള് എന്നീ നിലകളിലെല്ലാം ഇപ്പോള് ഇതെല്ലാം വ്യാപകമായിട്ടും നിർമാണ കെട്ടിട നിർമാണത്തിലും ഖനനം കാർഷികം എന്നീ മേഖലകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മെയിനായിട്ട് നമുക്ക് അവെയ്ലബിളായിട്ടുള്ള ട്രാക്ടറുകളുടെ ബ്രാൻഡെന്ന് പറയുന്നത് ജോൺ ദീരേ മാസി ഫർഗൂസൺ ന്യൂ ഹോളണ്ട് കുബോട്ട അങ്ങനത്തെയൊക്കെ കുറേ ബ്രാൻഡുകള് ഇന്ന് ഇന്നു നിലവില് ഉണ്ട് ഇനി പല തരത്തിലുള്ള ട്രാക്ടറുകളുണ്ട് പല ഉപയോഗത്തിലുള്ള ട്രാക്ടറുകൾ അതിലൊന്നാണ് യൂട്ടിലിറ്റി ട്രാക്ടറുകൾ അത് മെയിനായിട്ടും കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പോള് പല പല ടൈപ്പ് ഉപകരണങ്ങൾ കൃഷിക്ക് അവെയ്ലബിളാണെങ്കിലും അതിന് പണം ഇല്ലാത്ത സാധാരണക്കാരനായ കർഷകർക്ക് ഇത്തരത്തിലൊള്ള യൂട്ടിലിറ്റി ട്രാക്ടറുകളുപയോഗിക്കാം കാരണം അവ ഉഴുതു മറിക്കാനും പിന്നെ മറ്റു ഉപകരണങ്ങൾ അതിൽ കൂട്ടി ചേർക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും ഈ ട്രാക്ടറുകൾക്ക് നാല്പത്തിയഞ്ച് എച്ച് പി മുതൽ നൂറ്റി നാല്പത് എച്ച് പി വരെ മികച്ച പവറുണ്ട് ഇത്തരത്തിലുള്ള ട്രാക്ടറുകള് മൾട്ടി ഫങ്ഷൻ മൾട്ടി ഫങ്ഷനലാണ് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങിനും കൃഷിക്കുമൊക്കെ അനുയോജ്യമാണ് കൊയ്ത്തു യന്ത്രങ്ങള് മെതിക്കുന്ന യന്ത്രങ്ങള് വൈക്കോൽ വെട്ടുന്ന യന്ത്രങ്ങളൊക്കെ ഇതുമായിട്ട് നമുക്കു ബന്ധിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അതാണ് ഒരെണ്ണം യൂട്ടിലിറ്റി ട്രാക്ടറുകള് പറയുന്നത് പിന്നെ പറയുന്നത് ഇനിയും പല തരത്തിലുള്ള ട്രാക്ടറുകളുണ്ട് റോ ക്രോപ്പ് ട്രാക്ടര് ഈ ട്രാക്ടറെന്നു പറയുന്നത് ഇപ്പോള് നമ്മള് മെയിനായിട്ടും വിളകള് കൃഷിയില് പാടത്ത് നട്ടു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റോ ക്രോപ്പ് ട്രാക്ടറുകള് ഇപ്പോള് ഇത്തരത്തിലുള്ള ട്രാക്ടര് ഒരു ഓൾറൗണ്ടർ യന്ത്രമാണ് ഉഴുവ് വിളവെടുപ്പ് ലെവലിങ്ങ് ഹാറോയിങ്ങ് വിത്ത് ഡ്രില്ലര് വലിക്കൽ തുടങ്ങിയ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റോ ക്രോപ്പ് ട്രാക്ടര് ഉപയോഗിക്കുന്നു പിന്നെ മെയിനായിട്ടും റോ ക്രോപ്പ് ട്രാക്ടറുകളുടെ ഡീലറെന്ന് പറയുന്നത് ജോൺ ഡീറാണ് ജോൺ ഡീർ മൂന്നാമത്തെ തോട്ടം തരം ട്രാക്ടറുകള് ഇത്തരത്തില് പരിപ്പ് തോട്ടങ്ങളും മുന്തിരി തോട്ടങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് രൂപകല്പന ചെയ്തിട്ടുള്ളതാണ് തോട്ടം തര ട്രാക്ടറുകള് കർഷകർക്ക് സുഖമായിരിക്കാനും ഒരേ സമയം ഉയർന്ന് തൂങ്ങിക്കിടക്കുന്ന പഴങ്ങളെടുക്കാനും സഹായിക്കുന്ന തരത്തിലാണ് ഇവയുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത്തരത്തിലുള്ള ട്രാക്ടറുകള് മെയിനായിട്ടും മഹീന്ദ്ര ടൂ ഫോർ ഫൈവ് ഡി വൺ ഓര്ച്ചാഡ് ട്രാക്ടർ ഫോഴ്സ് ഓർച്ചാഡ് ഒ എക്സ് ടൂ ഫൈവ് ഡി എൽ എക്സ് ട്രാക്ടര് അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡുകള് അവെയ്ലബിളാണ് പിന്നെ വരുന്നതാണ് വ്യവസായ ട്രാക്ടറുകൾ അത് മെയിനായിട്ടും വ്യാവസായികമായ കാര്യങ്ങൾക്ക് അതായത് കെട്ടിട നിർമാണം പോലുള്ള ആവശ്യങ്ങൾക്കുപയോഗിക്കുന്നതാണ് വ്യാവസായിക ട്രാക്ടറുകള് അപ്പോള് പ്രധാനമായിട്ടും വ്യവസായിക ട്രാക്ടറുകള് വലിയ ഭാരം വലിക്കാൻ സഹായിക്കുന്നു ക്രെയിനുകൾ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ ഭാരം ഉയർത്താൻ അതിലെളുപ്പമായിരിക്കും ത്രീ പോയിന്റ് ലിങ്കേജുകൾക്ക് പകരം ഡ്രോ ബാറാണ് ഇത്തരത്തിലുള്ള ട്രാക്ടറുകൾക്കുണ്ടാവുക പിന്നെ ഇതു മെയിനായിട്ടും ഇത്തരം ട്രാക്ടറുകളിൽ നിന്നും വാങ്ങാൻ നിരവധി ട്രാക്ടർ നിർമാതാക്കളുണ്ട് മികച്ച നിർമാതാക്കൾ എന്ന് പറയുന്നത് ഫോഡ് ഇൻഡസ്ട്രിയൽ ട്രാക്ടറുകൾ എസ്കോർട്ട് ഇൻഡസ്ട്രിയൽ ട്രാക്ടറുകൾ മുതലായവയാണ് അങ്ങനെ പല തരത്തിലുള്ള ട്രാക്ടറുകള് ഇന്നത്തെ കാലത്ത് നമുക്ക് ലഭ്യമാണ് പരമ്പരാഗത രീതികൾ എന്നു പറഞ്ഞുകഴിഞ്ഞാല് ആകെയൊരു ട്രാക്ടറുണ്ടായിരുന്നത് ഉഴുവാൻ നിലം ഉഴുവാൻവേണ്ടി മാത്രമുള്ള ടൈപ്പിൽ സാധാരണ രീതിയില് ഉള്ളൊരു ട്രാക്ടറാണ് പണ്ട് അവെയ്ലബിളായിട്ടുള്ളത് ഇന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പല തരത്തില് പല മേഖലകളില് അവരുടെ അദ്ധ്വാനം കഷ്ടപ്പാടൊക്കെ കുറയ്ക്കാവുന്ന രീതിയിലും പാവപ്പെട്ടവർക്ക് വരെ ലഭ്യമാകുന്ന തരത്തിൽ പല തരത്തിലുള്ള ട്രാക്ടറുകളിന്ന് ലഭ്യമാണ് അത്യാധുനികമായ എല്ലാ സജീകരണങ്ങളോടും കൂടിയിട്ട് നമുക്കിന്ന് ലഭ്യമാണ് ഇന്നത്തെയൊരു ആധുനിക ചിന്താഗതി അനുസരിച്ച് ഇത്തരത്തിലുള്ളൊരു വികസനം ട്രാക്ടറുകള് പല തരത്തില് വരുന്നത് കുറച്ചും കൂടെ കാർഷികവും ഖനനവും നിർമാണ മേഖലയിൽ ഒത്തിരി ഉപകാര പ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു